ഹലോ ഊബർ ബുക്കിംഗ് അല്ലേ എനിക്ക് ഇവിടെ പേയാട് നിന്ന് അതായത് തിരുവനന്തപുരം പേയാട് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകണമായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി

അതിന് എങ്ങനെയൊക്കെയാണ് റേറ്റ് വരിക എന്നൊന്ന് പറയാമോ അതായത് ഒരു ഇരുപത് പേരൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് പോകാൻ പറ്റുക അതിൻ്റെ ലഭ്യത എങ്ങനെയാണ് വണ്ടികളുടെ ലഭ്യത എങ്ങനെയാണ് എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്നൊന്ന് പറയാമോ ഓവർ സ്പീഡ് പറ്റില്ല കേട്ടോ ഓവർ സ്പീഡ് പറ്റില്ല കാരണം കുഞ്ഞ് കുട്ടിയൊക്കെയുണ്ട് കൂടെ അതുകൊണ്ട് മിതമായ സ്പീഡിൽ ഓടിക്കുന്ന ഡ്രൈവർമാർ ആയിരിക്കണം പിന്നെ കള്ളു കുടിക്കുന്ന ഡ്രൈവർമാരൊന്നും ആവരുത് അതൊക്കെയാണ് ഞങ്ങളുടെ ഡിമാൻഡ്സ് ഓക്കേ ഏതൊക്കെ കാറുകളാണ് ഏതൊക്കെ ലഭ്യമായിട്ടുള്ളത് എന്നൊന്ന് പറയാമോ കോളിസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര പേര് കയറുമായിരിക്കും ഓക്കേ എനിക്ക് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇരുപത്തി മൂന്നാം തീയതി ഈ മാസം ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് പോകേണ്ടത് അപ്പം അവിടെ ഈ വേളാങ്കണ്ണിയിൽ പോകുന്ന വഴിക്ക് തന്നെ ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നിർത്തേണ്ടി വരും അപ്പം എങ്ങനെ എത്ര ദിവസമെടുക്കും തീയതി അനുസരിച്ചിരിക്കും ഓക്കേ അല്ല ത്രൂഔട്ട് ഇങ്ങനെ ഓട്ടം മാത്രമല്ല ഇടയ്ക്ക് നമുക്ക് സ്ഥലങ്ങളൊക്കെ കണ്ട് പോവാനാണ് ഉദ്ദേശിക്കുന്നത് ട്രിപ്പ് പോലെ പോവാനാണ് ഉദ്ദേശിക്കുന്നത് സ്റ്റേ ചെയ്യുന്ന ടൈമും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുകയുള്ളൂ അല്ലേ എന്നാലും നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പാക്കേജോ അങ്ങനെ എന്തെങ്കിലുമുണ്ടോ അതായത് ഇപ്പോൾ വേളാങ്കണ്ണിയിൽ പോകുന്ന സമയത്തുള്ള സ്ഥലങ്ങൾ ഇടയ്ക്കുള്ള സ്ഥലങ്ങൾ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അത് അവിടേക്ക് ഇങ്ങനെ നിർത്തി കാണിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് പോകുന്ന അങ്ങനെ എന്തെങ്കിലും പാക്കേജ്സ് എന്തെങ്കിലും അവൈലബിൾ ആണോ ഓടുന്ന കിലോമീറ്ററ് അനുസരിച്ചിട്ടാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പാക്കേജ് ഓപ്ഷൻ ഇല്ല ഓക്കേ ഓക്കേ മനസ്സിലായി ഓക്കേ ഓക്കേ അപ്പോൾ ഇരുപത്തി മൂന്നാം തീയ്യതി ബുക്ക് ചെയ്യണം അപ്പം കോളിസ് മതി രണ്ട് കോളിസ് മതി രണ്ട് കോളിസ് ബുക്ക് ചെയ്യണം എന്തെങ്കിലും പേ പേയ്മെൻറ്റെന്തേലും ഇപ്പഴ് ചെയ്യാണോ അയ്യായിരം ഓക്കേ ഓക്കേ അയ്യായിരം രൂപ അടച്ചിരിക്കാം ഗൂഗിൾ പേ നമ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് സെൻ്റ് ചെയ്യാമായിരുന്നു വന്ന് അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതാണ് ഓക്കേ ഓക്കേ ഈ നമ്പറിലേക്ക് അയച്ചിരിക്കാം അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതിയാണ് നമുക്ക് നമ്മൾ ഒരു രാവിലെ വെളുപ്പിന് അവിടെ നിന്ന് ഇറങ്ങാൻ കണക്കിനാണ് നമ്മൾ പ്ലാൻ ചെയ്തു വച്ചിരിക്കുന്നത് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മൂന്ന് മണി നാല് മണി ആ ഒരു ടൈമിൽ മൂന്ന് മണി പറഞ്ഞാൽ നാല് മണിയാവും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഓക്കെ അല്ലേ ഓക്കേ ഓക്കേ അപ്പം ബാക്കി പ്രോസിജിയേഴ്സ് എല്ലാം വാട്സാപ്പിൽ എന്തായാലും ഒന്ന് സെൻ്റ് ചെയ്തേക്ക് കേട്ടോ ഞാൻ എന്തായാലും ക്യാഷ് എമൗണ്ട് ഇട്ടിരിക്കാം അയ്യായിരം രൂപ ഇട്ടിരിക്കാം ഓക്കേ താങ്ക് യു